ഞങ്ങളുടെ കേരളത്തിൽ വേനൽക്കാലത്ത് നല്ല കഠിനമായ വേനൽ ചൂട് എന്നാൽ ചില രീതിയിൽ മറ്റ് സംസ്ഥാനം അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചു തണുപ്പ് തണുപ്പുള്ളൊരു സംസ്ഥാനം ആണ് നമ്മളുടെ സ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയും ശീതകാലവും ഋതുക്കാലവും വസന്തകാലവും ഒക്കെ എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു എന്നാൽ ഈയിടെ ആയിട്ടുള്ള മനുഷ്യരുടെ പ്രകൃതിയോട് കാണിക്കുന്ന ആ ഒരു മനോഭാവം ആ ഒരു രൂക്ഷമായ പ്രവർത്തികൾ മൂലം നമ്മുടെ ഋതു ഋതുക്കളിൽ വളരെ വ്യത്യാസം വന്നിരിക്കുന്നു വേനൽക്കാലത്ത് മഴ മഴക്കാലത്ത് ചൂട് ഇപ്പോൾ രാവിലെ രാവിലെ തൊട്ട് ഉച്ച വരെ വെയിൽ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞു മഴ സ്പ്രിങ് സീസൺ ഓട്ടം സീസൺ തുടങ്ങിയ ഒന്നും ഒന്നും ആസ്വദിക്കാൻ ഒള്ള ഒന്നും ഇല്ല അല്ലെങ്കിൽ മരങ്ങളിലെ ഇല പൊഴിച്ചിലും ഇപ്പോൾ എല്ലാ മരങ്ങളും വാടി ഉണങ്ങി വെള്ളം കിട്ടാതെ വളരെ ദയനീയമായ ഒരവസ്ഥയാണ് ഇപ്പോൾ നാം കാണുന്നത്